ഇപ്പോൾ വയനാടെന്നു പറയുന്നത് എൻ്റെ നാട് വയനാടാണ് അപ്പോൾ വയനാട്ടിൽ എന്നു പറയുമ്പോൾ മെയിനായിട്ട് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് നമ്മൾ എവിടെ നോക്കിയാലും വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നു പറയുന്ന സംഭവം വളരെ ഫെയ്മസാണ് ഇപ്പം മീൻമുട്ടി വാട്ടർ ഫാൾസ് കാന്തൻപാറ വാട്ടർ ഫാൾസ് പിന്നെ ഹിൽ സ്റ്റേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊള്ളായിരം കണ്ടി പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ചെമ്പറ പീക്ക് കാര്യങ്ങളൾ അതുപോലെ പൂക്കോട് ലെയ്ക്ക് കാര്യങ്ങൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഭയങ്കര ഡിപ്പെൻ്റബിളായിട്ട് എല്ലാം ഫെയ്മാസാണ് പിന്നെയൊക്കെ വായനാട്ടിൽ എന്നു പറയുമ്പോൾ വളരെയധികം സ്കോപ്പ് ഉള്ളൊരു കാര്യമാണ് ഈ ടൂറിസ്റ്റ് എന്നു പറയുന്നത് ടൂറിസ്റ്റുകൾ അത്രയും അധികം വരുന്നതുകൊണ്ട് ഈ ടൂറിസ്റ്റ് പ്ലേയ്സുകൾ എന്നു പറയുമ്പോൾ ഭയങ്കരമായി ഫെയ്മസാണ് എല്ലാം തന്നെ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും പിന്നെ സ്ഥലങ്ങളുടെ ഭംഗിയും ഒക്കെ കൊണ്ട് തന്നെ അത്രയും അധികം ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നൊരിതാണ് എല്ലാവർക്കും വന്നു കണ്ട് പോകുവാനും ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളാണെങ്കിൽ തണുപ്പും എല്ലായിതും എല്ലാം കോടയും കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ മാറി മറിയുന്നതുകൊണ്ട് എല്ലാവർക്കും വന്നു പോകുവാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ക്ലൈമറ്റും കാര്യങ്ങളാണ് അതുപോലെ സ്ഥലങ്ങളിലെ ഭംഗിയാണെങ്കിലും അത് ഓരോ സ്ഥലങ്ങളനുസരിച്ച് കുന്നും മലയും പുഴകളും കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ മാറിമാറി വരുന്നതുകൊണ്ട് അതും എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം ഇതാണ് വിനോദ സഞ്ചാരമെന്നു പറയുന്ന ഒരു സാധനത്തിനെ ഏറ്റവും നല്ല കൂടുതൽ സ്കോപ്പ് ഉള്ളൊരു സ്ഥലമാണ് ആൾക്കാരത്രയും അധികം അട്രാക്ട് ചെയ്യുന്നൊരു സ്ഥലവും കൂടിയാണ് വയനാട് എന്നുപറയുന്നത് ഇവിടെ അതിനനുസരിച്ചുള്ള ആൾക്കാരുടെ തൊഴിലും കാര്യങ്ങളും അവർക്കുള്ള ഓരോ ഇതും കാര്യങ്ങളൊക്കെയായിട്ടും ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലം എന്താണ് ഓരോ ഓരോ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഹാൻ്റ് മെയിഡായിട്ടും ഒക്കെ ഉണ്ടാക്കി ആൾക്കാരു വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ വെറൈറ്റി ഫുഡ്ഡുകൾ കാര്യങ്ങൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് പിന്നെ തേയിലത്തോട്ടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ വളരെ ഭംഗിയേറിയ സ്ഥലമാണ് കാടും മലയും കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ കാണുമ്പോൾത്തന്നെ ഭയങ്കരമായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് വയനാട്ടിൽ മൊത്തം ഉള്ളത് നല്ല എല്ലാവരെയും ആകർഷിക്കുന്നൊരു സ്ഥലമാണ് വയനാടെന്നു പറയുന്നത്